ഇപ്പോൾ ഞാനങ്ങണ കൂടുതല് പണ്ട് കാലത്തൊക്കെ ആയിരുന്നു റേഡിയോ കണ്ടോണ്ടിരുന്നത് അപ്പോൾ ചാനലുകളും കാര്യങ്ങളൊന്നും അന്ന് അവൈലബിളല്ലായിരുന്നു എന്നാ ഇന്നിപ്പം ഞാൻ കുടുതലും എന്ത് പറയുക ടിവി തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റെ ടിവി ഉപയോഗിച്ച സമയത്ത് നമുക്ക് നല്ല ഒര് എന്താ പറയുക അനുഭവം തന്നെയാണ് കിട്ടുന്നത് ഒരുപാട് എൻറ്റർടെയിൻമെൻറ്റ് പ്രോഗ്രാമ്സ് ഇപ്പോൾ ടിവിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കങ്ങന നല്ലൊരു പരിപാടിയായിട്ടാണ് ഇപ്പം തോന്നുന്നത് എന്താ പറയുക കോമഡി ഉത്സവം എന്ന് പറയുന്ന പരിപാടി അടിപൊളിയായിരുന്നു പിന്നെ ഫ്ലാവേർസിലെ നല്ല നല്ല പരിപാടികൾ ഇപ്പഴ് ഉണ്ട് എന്താ പറയ്യ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് അത് നമുക്കെന്താ പറയുക ശരിക്കൊരു എൻറ്റർടെയിൻമെൻറ്റ് തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കിടിലം എന്ന് പറയുന്നൊരു പരിപാടി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോസൊക്കെ ഞാന് ഇപ്പോൾ വല്ലാണ്ട് ഇരുന്നു കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എൻറ്റർടെയിൻമെൻറ്റ് തന്നെ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാന് അത് ഒരു പരിപാടി പോലും മിസ് ചെയ്യാണ്ടിരുന്ന് കാണാറുണ്ട് അപ്പോൾ അത് നല്ലൊരു പരിപാടികളായിട്ടാണ് എനിക്കും തോന്നുന്നത്